ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ അവന്റെ പഠനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഗതാഗതസൗകര്യമെന്നുള്ളത് സ്വാഭാവികമായിട്ടും

ഇപ്പം ഈ അടുത്ത് ഇന്നലെ റിസൾട്ട് എസ് എസ് എൽ സി റിസൾട്ട് രണ്ട് ദിവസം മുമ്പ് എസ് എസ് എൽ സി റിസൾട്ട് വന്നു ഇപ്പോള് ഇനി പ്ലസ് വൺ പ്ലസ് ടു അലോട്ട്മെന്റിനുള്ള സമയമാണ് സ്റ്റുഡൻസിന് അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കലാലയം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോള് അവർക്ക് ദൂരേക്ക് പോകണമെങ്കില് ഗതാഗതസൗകര്യം അനിവാര്യമാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയില് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോള് കൊടുക്കുന്നുണ്ട് ബസ്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുതന്നെ ചിലയാളുകള് അവരോടൊക്കെ ഭയങ്കരം മോശമായിട്ട് പെരുമാറുന്ന ഒരു പ്രവണത നമ്മള് കണ്ടുവരുന്നതാണ് അതൊക്കെ സ്റ്റുഡൻസിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ മേഖലയെ അത് നന്നായിട്ട് ബാധിക്കും ചില വിദ്യാർത്ഥികൾ ചിലപ്പോള് പഠനം നിർത്തും അവര് അവരുടെ ജോലിയും കാര്യങ്ങളുമൊക്കെയായിട്ട് പോയിക്കഴിഞ്ഞാല് അത് നമ്മുടെ നാടിന് നഷ്ടപ്പെടുന്നത് ഒരു ഒരു വിദ്യാർത്ഥിയെയാണ് വിദ്യാർത്ഥിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ അസെറ്റാണ് വിദ്യാഭ്യാസമില്ലായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹം ആ ഒരു നാടിൻ്റെ ലയബിലിറ്റി ആയിട്ടാണ് വരിക അവർക്ക് ആ ഒരു വിദ്യാഭ്യാസം അതിനെ ആ ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ നാടിനൊരു ലയാബിലിറ്റിയാണ് അതുകൊണ്ടുതന്നെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഗതാഗതസൗകര്യം സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബസ് സിസ്റ്റം അവർക്കെന്താണ് ഉണ്ട് പക്ഷേ എങ്കിൽപ്പോലും അവർക്ക് അതിനുള്ള സൗകര്യമില്ലാത്തവരുണ്ടാകും അപ്പോള് അവര് സാധാ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകും അപ്പോള് അവർക്ക് അതിൻ്റെ ചെറിയ ചാർജുകളാണുണ്ടാവുക അതിൽ തന്നെ അവരോട് മോശമായി പെരുമാറുമ്പോഴുണ്ടാകുന്ന ചില അസൗകര്യങ്ങളും കാര്യങ്ങളും കുട്ടികളുടെ ഭാവി പഠനത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാക്കും പക്ഷെ എന്നിരുന്നാലും ഈ കേരളത്തില് ഇപ്പോള് ഒരുപാട് അധികം ഏകദേശം സ്ഥലത്തൊക്കെ കുട്ടികൾക്ക് ഗതാഗതസൗകര്യം ഉണ്ട് അതിന് കൃത്യമായിട്ട് സ്കൂളുകൾ ഇടപെടുന്നുണ്ട് സർക്കാറുകള് ഇടപെടുന്നുണ്ട് എന്നാലും ചില സ്ഥലത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് സ്ഥലത്ത് വിദ്യാർത്ഥികൾ ഒരുപാട് കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന ഒരുപാട് വിദ്യാർഥികളൊക്കെയുണ്ട് അവർക്കൊക്കെ വേണ്ട അടിസ്ഥാനസൗകര്യങ്ങൾ സർക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അവരിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ നാടിന് ആവശ്യമായ ഒരുപാട് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും നമ്മുടെ നാടിന് ആവശ്യമായ ഒരുപാട് വലിയ വലിയ കളക്ടര്മാരും വലിയ വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ വരുമ്പോള് ആ നാടിനും ആ അവർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഭാവിയിലുണ്ടാകുമെന്നതാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒരു വലിയ ഉപകാരം